എല്ലാ ആളുകളും ഒത്തുചേരുകയും ഇരുന്ന് ആസ്വദിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രശസ്തമായ കൂട്ടായ്മ എന്നു പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അസോസിയേഷൻ തന്നെയാണ് ഞങ്ങൾ ഞാൻ താമസിക്കുന്നത് ഗവൺമെന്റ് ഹൗസിങ് ബോഡിൻ്റെ കീഴിലാണ് അപ്പോൾ അവിടെ നമ്മൾക്കൊരു അസോസിയേഷനുണ്ട് ഈ അസോസിയേഷൻ എല്ലാ ഓണത്തിനും പരിവാടികൾ നടത്താറുമുണ്ട് അപ്പോൾ ആ പരിപാടികൾക്ക് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പങ്കെടുക്കാറുമുണ്ട് സാധാരണയായി ഓണമായിട്ട് ഓണത്തിനോട് അനുബന്ധിച്ച് ഒരു കലാപരിപാടികളും സ്പോർട്സ് പരിപാടികളും അതുകൂടാതെ സദ്യയും വടംവലിയും എല്ലാം ചേർന്നൊരു ഗംഭീരമായ ഒരാഘോഷം തന്നെയാണ് ഓണം അസോസിയേഷൻ നടത്തുന്ന ഓണപ്പരുപാടി എന്ന് പറയുന്നത് അതിന് എല്ലാ ആളുകളും ഒത്തുചേരുകയും എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ട്ടപ്പെട്ട ഒരു കാര്യമായതു കൊണ്ടുതന്നെ എല്ലാവരും നല്ല രീതിയിൽ അവിടെ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ ആളുകളും ഒത്തുചേരുകയും ആസ്വദിക്കുകയും ചെയ്യുന്നൊരു പ്രശസ്തമായ ഞങ്ങളെ സമൂഹത്തിൽ പ്രശസ്തമായ ഒരു കൂട്ടായ്മയാണ് ഇത്